ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാചക വിധി എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ട്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ബിരിയാണി ഐറ്റംസ് തന്നെയാണ് നമ്മള് ഇപ്പോൾ സാധാരണ കൂടുതൽ കഴിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്താ അധികം പറയുമ്പോൾ എന്തിന് ഇപ്പോൾ പറയുമ്പോൾ നമ്മള് ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയാൽ വരെ അവിടത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിരിയാണി തന്നെയാണ് കാരണം എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ബിരിയാണി ഐറ്റംസ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മക്കും അത് തന്നെയാണ് കൂടുതലായിട്ട് ഇഷ്ടം ആയിട്ടുള്ള സംഭവങ്ങള് അപ്പം അത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കാരണം എവിടെ പോയി കഴിഞ്ഞാലും നമ്മള് കഴിച്ചിട്ടുണ്ടെങ്കില് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എന്താ പറയുക നാവിൽ നിന്ന് പോകാത്ത ടൈപ്പ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് എനിക്കും കൂടുതല് ഇഷ്ടം പിന്നെ മന്തി പിന്നെ എന്താ പറയുക ബ്രോസ്റ്റഡ് ചിക്കൻ അൽഫാം അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ നമുക്ക് ഇഷ്ടമാണ് പിന്നെ ഷവർമ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളും നമുക്ക് ഇഷ്ടം തന്നെയാണ് എന്നാലും കൂടുതല് നമ്മള് കഴിച്ച് വരുന്നത് ബിരിയാണി ആയത് കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിനോട് തന്നെ പ്രത്യേക താല്പര്യം തോന്നുന്നത് എനിക്കും അത് പോലെ തന്നെ ബിരിയാണിയോട് പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്